വാർത്തയിൽ കാണിക്കുന്ന കാര്യങ്ങളും യാഥാർത്ഥ്യങ്ങളും തമ്മിൽ വളരെയധികം വ്യത്യാസമുള്ളതായി എനിക്ക് തോന്നാറുണ്ട് പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ എന്താ പറയേണ്ടേ നമ്മുടെ ഇതുപോലുള്ള മീഡിയ രംഗം വളരെയധികം സജീവമായതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും ഈ മീഡിയ വളരെയധികം സ്വാധീനം ചെലുത്തുന്നത് കൊണ്ട് തന്നെ എല്ലാം ഒരുപാട് ചാനലുകളും ഒക്കെ നമ്മുടെ ഇവിടെ ഇന്നിപ്പം അവൈലബിൾ ആണ് പക്ഷേ എല്ലാവരും അവരവരുടെ എല്ലാ ഓരോ മീഡിയയ്ക്കും അവരവരുടെതായിട്ടുള്ള ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ അവരുടെ അവരവരുടേതായിട്ടുള്ള ഒരു ഒരു അവർ വിശ്വസിക്കുന്ന ഒരു പ്രത്യാശാസ്ത്രമുണ്ട് അപ്പോൾ ഏതൊരു വാർത്ത വന്നാലും അവരുടെ പ്രത്യാശാസ്ത്രത്തിനും അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന ആ രാഷ്ട്രീയത്തിനും ചേരുന്ന രീതിയിലുള്ള വാർത്തയാക്കി അവർ മാറ്റാറുണ്ട് എന്ന് ഞാൻ വളരെയധികം വിശ്വസിക്കുന്നു മറ്റു ചില കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ മറ്റുള്ളവരെ അഫക്ട് ചെയ്യാത്ത വാർത്തകൾ മാത്രമേ എല്ലാവരും ഒരുപോലെ കൊടുക്കാറുള്ളൂ അല്ല എങ്കിലും ഓരോ ഒരു വാർത്ത തന്നെ പല ചാനലുകളിൽ വരുമ്പം അതിന് പല രീതിയിൽ ഉള്ള വ്യാഖ്യാനങ്ങൾ നമുക്ക് തോന്നാറുണ്ട് അതുകൊണ്ടുതന്നെ തീർച്ചയായും വ്യത്യാസമുണ്ട് ഇങ്ങനെ വാർത്ത കൊടുക്കുന്നത് കൊണ്ട് തന്നെ ചില വാർത്തകളെങ്കിലും ഒരു തെറ്റായ വാർത്തകൾ അല്ലെങ്കിൽ വ്യാജ വാർത്തകൾ ആയിട്ട് നമുക്ക് തോന്നാറുണ്ട് തീർച്ചയായിട്ടും ഇത് കാണുന്ന കുഞ്ഞ് പുതിയതായിട്ട് വരുന്ന തലമുറകൾ ചില രീതി ചിലർക്കെങ്കിലും ഇത് വളരെയധികം ഒരു മോശമായിട്ടുള്ള രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് ഈ സ്വാധീനം തീർച്ചയായിട്ടും അവരുടെ ഈ നമ്മുടെ ഇന്നത്തെ ജീവിതത്തെ തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്